മലയാളത്തിലെന്നു പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ ഒരു ടൈം കാലഘട്ടങ്ങളിലൊക്കെ നമുക്ക് നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണെന്താ വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിൽ സംസാരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ടീച്ചർ വായിപ്പിക്കാനൊക്കെ നിർത്തുന്ന സമയത്ത് നമുക്ക് വായിക്കാനൊക്കെ നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ പിള്ളേരൊക്കെ നോക്കി നമ്മളെ ചിരിക്കുകയൊക്കെ ചെയ്യും കാരണം നമ്മൾക്ക് വലിയ രീതിയില് വായിക്കാനറിയില്ലല്ലോ ഇടയ്ക്ക് തപ്പി പോവുക ഇടയ്ക്ക് വാക്കുകൾ കിട്ടാണ്ടാവുക അങ്ങനത്തെ പല രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു ടൈമില് ഉണ്ടായിരുന്നു പിന്നെപ്പിന്നെ വലിയ കുഴപ്പമില്ലാത്ത രീതിയില് വായിക്കാനൊക്കെ തുടങ്ങി പിന്നെ നമ്മള് വായന ഒരു ശീലമാക്കിയതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയില് വായിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇപ്പോൾ പറ്റുന്നുണ്ട് പിന്നെ എഴുതുമ്പോൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് നല്ല രീതിയിലുള്ള പ്രശ്നനങ്ങള് ഉണ്ടായിരുന്നു നമുക്ക് അക്ഷരത്തെറ്റും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആദ്യത്തെ ടൈമിലൊക്കെ പിന്നെ വലിയ കുഴപ്പമില്ലാത്ത രീതിയില് നമ്മള് എഴുതാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് പല രീതികളിലും ബുദ്ധിമുട്ട് നേരിട്ടിട്ടാണ് മലയാളമൊക്കെ എഴുതാനും വായിക്കാനൊക്കെ പഠിച്ചത് അപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അത് നല്ല രീതിയില് നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്